നമുക്ക് പെര്മനൻറ്റായിട്ടൊരു ജോബ് എന്നുള്ള ഉദേശമാണെങ്കിൽ പ്രത്യേകിച്ച് ബാങ്കിൽ ആണെങ്കിൽ നമ്മൾ ടെസ്റ്റെഴ്തി പാസ്സാവുക തന്നെ വേണം ആ ടെസ്റ്റെഴ്തി പാസ്സാവുകാന്നുള്ളത് വലിയൊരു കടമ്പയാണ് അതിന് വേണ്ടി നമ്മൾ നല്ല തയ്യാറെടുപ്പ് നടത്തണം കോച്ചിങ്ങ് ക്ലാസ്സ്കളിൽ പോവാന് പറ്റുകയാണെങ്കില് അത് നല്ലൊരോപ്ഷനാണ് കാരണമവിടെ പോയിട്ടൊരു ഒരു സമയ ക്രെമം നമ്മൾ പഠിക്കേണ്ടതത്യാവശ്യമാണ് ഇത്ര സമയത്തിൻറ്റുള്ളിൽ ഇത്ര ക്വൊസ്റ്റ്യന്സ് ആന്സറ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് അത് നമ്മൾ വെ ഒറ്റയ്ക്കിരുന്ന് പഠിച്ച് തീര്ക്കാമെന്ന് വെച്ചാലൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് അവിടെയാണെങ്കിൽ നമുക്ക് കുറെ ക്വൊസ്റ്റ്യനാന്സുണ്ടാവും അതൊക്കെ നമ്മൾ ആന്സർ ചെയ്ത് ചെയ്ത് നമുക്കങ്ങനെ ടൈം മാനേജ്മന്റക്കെ ചെയ്യാമ്പറ്റും പിന്നേന്ന് പറഞ്ഞാൽ അതിന്റെ ഒഴിവുകള്ക്കനുസരിച്ചിട്ടും ഏത് സ്ഥലത്താണ് ഒഴിവുകൾ എന്നയിനനുസരിച്ചിട്ടും അതക്കെ നോക്കി നമുക്കപ്പ്ളെയ് ചെയ്യാന് പറ്റണം അങ്ങനെയാണ് ബാങ്കിൽ കയറാന് എന്നുള്ള ഉദ്ദേശമുള്ള ആള്ക്കാർ ആ രീതീൽ മുന്നോട്ട് പോവാണ് നല്ലത് പിന്നെ കോപ്രേറ്റീവ് ബാങ്ക്കൾലൊക്കെ ആണെങ്കിൽ നമ്മൾ ജേ ഡീ സി എഛ് ഡി സി എന്നൊക്കെ പറയണ കോഴ്സ്സ്കളുണ്ട് ഇപ്പോൾ കൊമ്മേഴ്സ്സ് പഠിച്ച ആള്ക്കാർക്കും പറ്റുന്നതാണതക്കെ അവർ കോര്പ്രേഷന് അത് മാനേജ്മെന്റ് അതക്കെ പഠിക്കണത് കാരണം അവര്ക്കൊക്കെ പെട്ടന്ന് തന്നെ ചെയ്യാമ്പറ്റും അല്ലാത്തവര്ക്ക് ജേ ഡീ സി എഛ് ഡി സി അങ്ങനുള്ള കോഴ്സ്സ്കളക്കെ കഴിഞ്ഞാല് കോപ്രേറ്റീവ് ബാങ്ക്കൾലക്കെ അപ്ലൈ ചെയ്യാന് ഒരു ചാന്സ്സ്ണ്ട് എന്തായാലും ഒരു എക്സാംന്നുള്ളത് നമ്മളെന്തായാലും മുന്നില് കണ്ടിട്ട് മാത്രമാണ് ബാങ്കിങ് മേഖലയിലെക്ക് നമുക്ക് ജോലിക്ക് കയറാന് പറ്റുള്ളു അതേസമയം ഇന്ഷൊറന്സ് മേഖലയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം ഏജന്റ്റായിട്ടാണെങ്കിലും പ്രവര്ത്തിക്കാം അതിന് ഏജ് ലിമിറ്റ് അത്ര ബാധകമല്ല വീട്ടമ്മമാര്ക്കായാലും റിട്ടയർ ചെയ്ത ആള്ക്കാര്ക്കായാലും ഇനി പ്രായപൂര്ത്തിയായ വിദ്യാര്ത്ഥികള്ക്കായാലും ആര്ക്ക് വേണമെങ്കിലും ഏജന്റ്റായിട്ട് നമുക്ക് പ്രവര്ത്തിക്കാന് സാധിക്കും ആ രീതീൽ നമുക്ക് ഇന്ഷൊറന്സ് മേഖലയിലേക്ക് കയറിപ്പറ്റാമ്പറ്റും പക്ഷേ ബാങ്കിങ് മേഖലാന്നുള്ളത് നമ്മള്ക്കൊരു ടെസ്റ്റ് എന്നുള്ളൊരു കടമ്പ നമ്മുടെ മുന്നിൽ എന്തായാലും ഉണ്ടാവും ഞാനൊക്കേന്ന് പറഞ്ഞാൽ സെലക്റ് ചെയ്യാം ഒരു എക്കൗണ്ട്സിന്റെ റിലേറ്റടായിട്ടുള്ളൊരു ജോബ് തന്നെയാണ് അതായത് ബാങ്കിങ് മേഖല തന്നെയായിരിക്കും മാക്സിമം ഞാന് സെലക്റ് ചെയ്യാം കാരണം എക്കൗണ്ട്സ്സാണ് എനിക്ക് കൂട്തലിഷ്ടം അതുകൊണ്ട് ഇപ്പച്ചാഞ്ചെയ്യണതും പ്രൈവറ്റായിട്ട് എക്കൗണ്ട്സ് തന്നെയാണ്